കൊറോണ കാലം എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ദുരിതം ഏറിയൊരു സമയം തന്നെ ആയിരുന്നു നമ്മുടെ ഈ നാടും രാജ്യവും ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ശരിക്കും ഒരു ബുദ്ധിമുട്ടിൻ്റെ ഒരു ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ എത്തിയ അവസ്ഥയുള്ള കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ തന്നെ നമുക്ക് തൊഴിലില്ലായ്മ ആയിരുന്നു ഏറ്റവും നമ്മളെ നേരിട്ടൊരു പ്രശ്നം തൊഴിലിനു പോകാൻ പറ്റുന്നില്ല അല്ലെങ്കില് വീടിനു പുറത്തേക്കിറങ്ങി ഒരു ജോലി ചെയ്യാനോ പൈസ ഉണ്ടാക്കാനോ നമുക്ക് പറ്റുന്നില്ല ഇതൊക്കെയായിരുന്നു നമുക്ക് ഏറ്റവും കൂടുതല് നമ്മള് ഏറ്റവും അന്നത്തെ സമയത്ത് നേരിട്ട പ്രധാന ഒരു വിഷയം പറഞ്ഞാൽ ഇതു തന്നെയായിരുന്നു തൊഴിലില്ലായ്മ നമ്മൾക്ക് പുറത്തോട്ടിറങ്ങാനോ വീടിനുള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടണ്ടി വന്നു അതുകൊണ്ടൊക്കെത്തന്നെയാണ് ഈ കുട്ടികൾ പോലത്തെ അതുപോലെ ആൾക്കാരൊക്കെയും വീടിനകത്തു തന്നെ ഇരുന്നു അങ്ങനെ ശീലമായിപ്പോയ ആൾക്ക് പുറത്തെക്കൊന്നും ഇറങ്ങാനായിട്ടുള്ള ഒരു മടി വന്നത് അതുപോലെതന്നെ കൊറോണ സമയത്ത് നമുക്ക് ഒരുപാട് ഗുണങ്ങളും അതുപോലെതന്നെ ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ ആണെങ്കിലും വീട്ടിലുള്ളവരെല്ലാവരും ഇപ്പോൾ എന്താ പറയുക ഈ കൊറോണ കാലം വരുന്നതിനു മുന്നേ എല്ലാവരും ജോലി തിരക്ക് അവരവരുടെതായിട്ടുള്ള തിരക്കുകളിലൊക്കെ ഏർപ്പെട്ട് അവരങ്ങു പോയിരുന്നു അപ്പോൾ നമ്മുടെ ഒരുമിച്ചുള്ളൊരു സമയം ഒരുമിച്ചിരുന്നു ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്നു കുറേ സംസാരിക്കാനോ അങ്ങനെയുള്ള ഒരു സമയം നമ്മുടെ എൻ്റെ വീട്ടിൽ വീട്ടിൽ ഉണ്ടായിരുന്നില്ല എല്ലാവരും ജോലി തിരക്കുള്ള ആൾക്കാരായതുകൊണ്ട് പലരും പല വഴിക്കാണ് പക്ഷെ കൊറോണക്കാലം വന്നതിനു ശേഷം എല്ലാവരും വീടില് ഒത്തു കൂടുകയും എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങൾ സംസാരിക്കുകയും എല്ലാരുടെ ഇടയിലുള്ള ആ സൗഹൃദം വളരുകയും കൂടുതൽ കൂടുതൽ ആത്മ ബന്ധങ്ങളിലേക്ക് പോവുകയും ആ ഒരു സമയത്ത് ചെയ്യാൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കണം നമ്മള് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അന്നത്തെ സമയത്ത് ഒരുപാട് നിയമങ്ങളുണ്ടായിരുന്നു അതായത് മാസ്ക് വെച്ച് പുറത്തിറങ്ങാൻ എവിടെ പോയാലും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എല്ലാം വീടിനു വീടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോവുക ആ പോകുന്ന സമയത്ത് മാസ്ക് നിർബന്ധമായും ധരിക്കണം മിനിമം രണ്ട് മാസ്ക് എങ്കിലും ധരിച്ചിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ അംഗങ്ങളെല്ലാവരും തന്നെ പുറത്ത് പൊക്കോണ്ടിരുന്നത് ആവശ്യത്തിനുള്ള കാര്യങ്ങൾക്കല്ലാതെ അനാവശ്യ കാര്യങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങരുത് ഇതൊക്കെയായിരുന്നു വീട്ടില് മെയിനായിട്ടും ചെയ് മുൻകരുതലുകൾ എടുത്തിരുന്നത് പിന്നെ വാങ്ങിക്കുന്ന സാധനങ്ങളാണെങ്കിലും കഴിക്കുന്നതാണെൽ നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി ഉപയോഗിക്കുന്നു വസ്ത്രങ്ങള് പുറത്ത് പോയിട്ട് വരുന്ന വസ്ത്രങ്ങള് അതുപോലെ തന്നെ മാസ്ക് ഇതെല്ലം മാറ്റിയും അതുപോലെ തന്നെ കഴുകിയും വസ്ത്രമെല്ലാം എല്ലാത്തിലും ഒരു വൃത്തി കണ്ടെത്തുക എന്നുള്ളതായിരുന്നു അല്ലെങ്കിൽ എല്ലാം എന്ന് മുൻകരുതലോടെ എല്ലാം വൃത്തിയോടെ സൂഷ്മതയോടെ കൈകാര്യം ചെയ്തതായിരുന്നു അന്നത്തെ കാലത്ത് കൊറോണ ആ ഒരു കാലഘട്ടത്തില് ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നത്